എനിക്ക് സ്കൂളില് പഠിക്കുന്ന സമയത്ത് എനിക്ക് മലയാളവും ഗണിതവും വളരെ ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു അത് എഴുതാനും വായിക്കാനും ടീച്ചര് പറഞ്ഞ് തരുമ്പോള് നല്ലവണ്ണം മൻസ്സിലാക്കാനും ഒക്കെ നല്ല ഇഷ്ടമായിരുന്നു എക്സാമിനും അതേ മാതിരി തന്നെയെല്ലാ വിഷയത്തിലും എനിക്ക് മാർക്ക് കുറവായാലും മലയാളത്തിലും ഗണിതത്തിലും എനിക്ക് മാർക്ക് ഉണ്ടാവലുണ്ടായിരുന്നു പിന്നെ മലയാളം പഠിപ്പിക്കുന്നത് സൂസന്ന ടീച്ചറായിരുന്നു ഗണിതം പഠിപ്പിക്കുന്നത് മാത്യു മാഷായിരുന്നു അവര് രണ്ടാളും വരുന്ന സമയം ഞങ്ങളെ വിഷയത്തിന്റെ ബെല്ലടിക്കുമ്പോള് മാത്സാണ് മലയാളമാണ് എന്നുള്ള ഇതിലെനിക്ക് ഭയങ്കര ഇഷ്ട്ടപ്പെട്ടൊരു ഇരുന്നു ആ സമയത്ത് ഞാന് നല്ല സ്മാര്ട്ടായിട്ടിങ്ങനെ നില്ക്കും മാഷമ്മാര് വരുന്നതും ടീച്ചര് വരുന്നതും നോക്കിയിട്ട് നില്ക്കും അവര് പഠിപ്പിക്കുമ്പോള് അവരെത്തന്നെ നോക്കി എല്ലാം മനസ്സിലാക്കും ആ ഒരു വിഷയം നമുക്കിഷ്ടപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ ആ ടീച്ചർമാരും മാഷ്മാരും നമ്മള്ക്ക് ഏറ്റവും കൂടുതല് ഇഷ്ടമാവും അവര് സംസാരിക്കുമ്പോഴും അവര് നമുക്ക് പഠിപ്പിക്ക് തരുന്നതുമെല്ലാം നമ്മള് ശ്രദ്ധയോടെ കേട്ടിരിക്കും എക്സാമിന്റെ ടൈമിലും ആ മാഷമ്മാരും ടീച്ചർമാരും പറഞ്ഞുതന്ന ആ ഇത് നമ്മള് ഇതില് ചെയ്യുന്നതിങ്ങനെ നമുക്കിങ്ങനെ മനസ്സിലേക്കിങ്ങനെ വരും എക്സാമിന്റെ സമയത്ത് ടീച്ചറങ്ങനെ പറഞ്ഞേനു മാഷിങ്ങനെ പറഞ്ഞേനു അതില് ഗണിതത്തിനും മലയാളത്തിനുമാണ് കൂടുതലെനിക്ക് താൽപര്യമുണ്ടായിരുന്നതും അവ ആ ഒരണ്ട് വിഷയം എനിക്ക് മാർക്കും കിട്ടിയിരുന്ന ആ രണ്ട് വിഷയത്തിലും പിന്നെ ടീച്ചർമാരും മാഷുമാരും തന്നെ നല്ലെ പഠിപ്പിക്കുന്ന നല്ല മാഷുമാരുവായിരുന്നു നല്ല സ്വഭാവായിരുന്നു ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും കൂടുതല് സന്തോഷത്തോടെ പഠിപ്പിക്കുന്ന വിഷയവും അതായിരുന്നു